ഹലോ ആ ഓക്കേ പറഞ്ഞോളൂ ആ ഉണ്ട് സർ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ടു വീലർസും ഇപ്പോൾ അവൈലബിൾ ആണ് റെൻറ്റിന് നോർമൽ വെഹിക്കിൾ തൊട്ട് പ്രീമിയം വെഹിക്കിൾ വരെ നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ ഓൾറെഡി ഉണ്ട് സാർ ഇല്ല സർ നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി കൊടുക്കുന്നത് മൊത്തം കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടികളാണ് നമ്മൾ കൊടുക്കുള്ളൂ

റേറ്റ് ഇപ്പം നമുക്ക് ത്രിപ്പിൾ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്

ആ സ്കൂട്ടി ആണ് നമ്മൾ ത്രിപ്പിൾ നയന് കൊടുക്കുന്നത് ആ അവിടെ സർ നമ്മൾ അപ്പോൾ വണ്ടീൻറ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാകും സർ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്രീമിയം ലുക്കിൽ ആണ് വണ്ടി നമ്മൾ കൊടുക്കുന്നത് അതെ എല്ലാം ക്ലിയർ ആയിരിക്കും പേപ്പർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും പിന്നെ സപ്പോസ് നിങ്ങൾക്ക് വണ്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വഴിക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇതിൻ്റെ ഷോപ്പ് നമ്മുടെ ഷോപ്പ് അവൈലബിൾ ആണ് അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത വണ്ടി എത്തിച്ചു തരുന്നതായിരിക്കും അവർ കൊണ്ടുതരും ഓക്കേ ബൈക്ക് ആണല്ലേ ആ ഓക്കേ സർ അത് നമ്മൾ അറേഞ്ച് ചെയ്തുതരാം ഓക്കേ ഓക്കേ നമുക്കത് ചെയ്തുതരാൻ പറ്റും നമുക്ക് എല്ലാ വണ്ടിയും സ്റ്റോക്ക് ഉണ്ട് സാർ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്

അതിനിപ്പോൾ ടു തൗസൻഡ് ഒക്കെ വരും സാർ

അഡ്വാൻസ് വേണ്ട സാർ സാർ ഇവിടെ വന്നിട്ട് പേ ചെയ്താൽ മതി ആ ഓക്കേ ഓക്കേ